എല്ലാ ആളുകളും വിരുന്നിനൊത്ത് ചേര്വാ ആസ്വദിക്കുക എന്നൊക്കെ പറയണത് നമ്മൾ ഒരു നോമ്പ് തൊറക്ക് അങ്ങനേണ്ടാക്കാറുണ്ട് നാനാവിഭാഗത്തിലും പെട്ട എല്ലാ മതസ്ഥരും ചേർന്ന് നോമ്പ് തൊറവേണ്ടാക്കും അതിന് വേണ്ട ഭക്ഷണങ്ങൾ തയ്യാറാക്കാം അങ്ങനെ എല്ലാവരും ഒത്തൊരുമിച്ച് നോമ്പ് തൊറവെ നടത്താറുണ്ട് അതിൽ എല്ലാവരും ചെയ്യാറുണ്ട് പിന്നെ അതുപോലെ തന്നെ കൂട്ടായ്മ്മളെന്ന് പറഞ്ഞാലിപ്പം ആർക്കെങ്കിലും എല്ലാ സഹായങ്ങളൊക്കെ വേണ്ടി വന്നാലിപ്പതങ്ങനെ ഒരു സംഭവമായി മാറീട്ടുണ്ട് അതിന് എല്ലാ സഹായങ്ങളൊക്കെ വരുമ്പോൾ ജനങ്ങളാ ഒരു പ്രദേശത്തെ ജനങ്ങളെല്ലാരും ഒത്തൊരുമിച്ച് കൂടി ചേർന്ന് പിന്നെ ബിരിയാണി ചലഞ്ചെന്ന് പറയുന്ന രീതീൽ പല ചലഞ്ച്കളേറ്റെടുത്ത് അതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും തയ്യാറാക്കി ഭക്ഷണം പാചകം ചെയ്ത് അങ്ങനെ അത് കൊട്ക്ക്വാ അതുപോലെ തന്നെ വർഷത്തിലൊരിക്കൽ നമ്മുടെ പ്രദേശത്തുള്ള എല്ലാവരും ഒത്തൊരുമിച്ച് ചേർന്ന് കൊണ്ട് ഒരു കലാപരിപാടികൾ നടത്ത്വാ അതിന് വേണ്ട അന്നേക്ക് വേണ്ട ഭക്ഷണങ്ങൾ തയ്യാറാക്കി എല്ലാവരും ഒത്തൊരുമിച്ച് പോവ്വാ അങ്ങനെ സമൂഹത്തിൽ പല രീതിയിലുള്ള കൂട്ടയ്മകളൊക്കെ ചേർന്ന് ഓരോ വിരുന്നുകളൊക്കെ തയ്യാറാക്കി നടത്താറുണ്ട്